ബോളിവുഡ് ട്രോളിവുഡ് തരത്തിലുള്ള അല്ലെങ്കില് ആ മേഖലകളിലുള്ള സിനിമ അധികം കാണാറില്ല വളരെ ചുരുക്കമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാന് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ മോളീവുഡ് സിനിമകളാണ് കേരളത്തിലുള്ള ഭാഷാ ചിത്രങ്ങള് വളരെയധികം കാണാറുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എന്റെ കുട്ടിക്കാലത്ത് ജയനാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നടൻ അദ്ദേഹത്തിന്റെ ആ വേഷവിധാനങ്ങള് ആ പാന്സിന്റെ പ്രത്യേക ഷേപ്പും ഷര്ട്ടിന്റെ ഷര്ട്ടില് വച്ചിട്ടുള്ള കട്ടിങ്ങ്സ്സും അതൊക്കെ വളരെ എനിക്ക് എന്നെ സ്വധീനിച്ചിട്ടുള്ളതും അതുപോലെയുള്ള ഡ്രസൊക്കെ തയ്പ്പിച്ച് ഞാനും ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അടുത്തകാലത്ത് ഇറങ്ങുന്ന ചെറുപ്പക്കാരുടെ സിനിമകളിലും അതും സ്വാധീനിക്കാറുണ്ട് എന്നിരുന്നാലും ഈ വേഷവിധാനം എനിക്ക് ഇത്രയും നാളില് ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഈ ജയന്റെ വേഷവിധാനം തന്നെയാണ്